കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങള് അർഹതപ്പെട്ടവരില് എത്തുന്നതു വളരെ നല്ല കാര്യമാണ് അതു ശരിയുമാണ് എങ്കിലും ചില എങ്കിലും ചില പോരായ്മകളുണ്ട് അത് അർഹതപ്പെട്ടവർക്കു ലഭിക്കുന്നു എന്നു വരുത്തേണ്ടതാണ് അതു വേണ്ടപ്പെട്ട നേതാക്കന്മാര് ഉദ്യോഗസ്ഥന്മാരും അത് അർഹതപ്പെട്ടവരുടെ കയ്യില് തന്നെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു രൂപ മുടക്കിയാൽ അത് യഥാർഥ അർഹത സർക്കാര് സൗജന്യം നൽകുമ്പോൾ അത് അർഹതപ്പെട്ട കൈകളിൽ പത്തു പൈസയായിട്ടും ഒരു രൂപയ്ക്കുപകരം പത്തു പൈസയായിട്ടാണു കിട്ടുന്നത് ബാക്കി തൊണ്ണൂറു ശതമാനം വേറെ എടനിലക്കാര് തട്ടിക്കൊണ്ടു പോകുന്നു അത് ആ സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് സർക്കാര്ൾ സൗജന്യം കൊടുക്കുമ്പോൾ അതിന് അർഹതപ്പെട്ടരായിരിക്കണം പിന്നോക്കമായിട്ട് നില്ക്കുന്നവർക്കും പിന്നോക്കമായിട്ടു നില്ക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നില്ക്കുന്നതും സമുദായികമായിട്ടും സാംസ്കാരികമായിട്ടു പിന്നോക്കം നില്ക്കുന്നവർക്ക് ആനുകൂല്യം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം സാമ്പത്തികമായിട്ട് മുന്നോക്കം നില്ക്കുന്നവര്ക്ക് അനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക മാത്രമല്ല ഇപ്പോള് പല കാര്യങ്ങളുമുണ്ട് എസ് സി എസ് റ്റി സ്കീമുകളിൽ സൗജന്യം അനുകൂല്യങ്ങളൊക്കെ നല്കുന്നുണ്ട് എങ്കിലും അത് സാമ്പത്തികമായിട്ടു വളരെയധികം സ്വതന്ത്ര്യ ഇന്ത്യക്കു ശേഷം മുന്നോട്ടുവന്ന ധാരാളം ആൾക്കാരുണ്ട് അവരിൽനിന്ന് അത് ഒഴിവാക്കി അർഹതപ്പെട്ടവർക്കു മാത്രമായിട്ടു കുറയ്ക്കണം അതു സമുദായിക ആനുകൂല്യങ്ങൾ നൽകുന്നത് ശരിയായൊരു നടപടിയല്ല അതു സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്നവർക്കും സാംസ്കാരികമായിട്ട് പിന്നോക്കം നില്ക്കുന്നവർക്കും ആയിരിക്കണം നമ്മള് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും നൽകണ്ടത് എപ്പോഴും അത് അർഹതപ്പെട്ടൊരു കൈയില്ത്തന്നെ എത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടണം അത് അതിനുള്ള പോരായ്മകൾ ഉണ്ട് അതു ശരിയല്ല ആ പോരായ്മ അവരുടെ കയ്യില്ത്തന്നെ ആനുകൂല്യം എത്തണം അവർക്ക് അർഹതപ്പെട്ടത് വ്യക്തികള മാത്രമല്ല സമൂഹത്തിനായാലും ആ പ്രദേശത്തിനായാലും ചില പ്രദേശങ്ങൾ അനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട മേഖലയുണ്ട് സാമ്പത്തികമായി ഉയർന്ന സംസ്കാരമായി ഉയർന്ന മേഖലകളെ പിന്നോക്കം നില്ക്കുന്ന സമുദായങ്ങളും പിന്നോക്കം നില്ക്കുന്ന മേഖലകളിൽ കൂടുതൽ പരിഗണിക്കേണ്ടതുണ്ട് പൊതുവേ ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സംവിധാനം അനുസരിച്ച് ഉള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ളതുണ്ട് പിന്നെ അതു സമുദായകമായിട്ടു മാത്രം കാണരുത് അതു രാഷ്ട്രീയമായിട്ടും കാണരുത് അത് അർഹതപ്പെട്ടരുടെ കയ്യിൽ തന്നെ രാഷ്ട്രീയം നോക്കാതെ സമുദായം നോക്കാതെ വര്ഗം നോക്കാതെ അങ്ങനെയാണു ചെയ്യേണ്ടത് സൗജന്യം നൽകണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ ഇപ്പോള് കൂടുതൽ ആൾക്കാരും അത് അവരുടെ വേണ്ടത് എന്തായാലും നമ്മളത് സൗജന്യം കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവര് ഉയരുകയും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ആനുകൂല്യം കൊടുത്താല് വേണ്ടതുപോലെ വിനിയോഗിക്കുന്നുണ്ടോ അവരതുകൊണ്ട് പുരോഗതിയുണ്ടാവുന്നുണ്ടോ എന്നും ആനുകൂല്യം കിട്ടുമെന്നുള്ള ധാരണയിൽ ഉള്ള ന്യൂനപക്ഷം ആൾക്കാരുണ്ട് അവര് അതിന്ന് എന്നും കിട്ടുകയില്ല ഇതുകൊണ്ട് നമ്മള് സാമ്പത്തികമായിട്ടും സമുദായികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും നേട്ടം ഉണ്ടാകും അതുകൊണ്ട് എന്നും എനിക്ക് ആനുകൂല്യം കിട്ടുമെന്നുള്ള ധാരണ ഒഴിവാക്കി വിടേണ്ടതാണ് അല്ലാതെ എപ്പോഴും ഈ എല്ലാ സമയത്തും നമ്മളും നമ്മടെ പിന്തുടർച്ച മക്കള്ക്കും ഒക്കെ എന്നും ആനുകൂല്യം ഉണ്ടാവും അതുകൊണ്ട് മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു തോന്നല് അവരിൽ ഉണ്ടാകരുത് അവര് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ലഭിക്കില്ല എന്നൊരു ബോധ്യം കൂടി അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആനുകൂല്യം കിട്ടേണ്ടവര് ഇടപെട്ട് ബോധ്യപ്പെടുത്തണം ഇതെല്ലായ്പ്പോഴും ഉണ്ടാവില്ല എന്ന കാരണം അതിന് ബോധവൽക്കരണം നടത്തണം അതിൻ്റ ആവശ്യമാണ് ഇതാണ് എൻ്റെ അഭിപ്രായം ശരിയാ ഇതു ശരിയോ തെറ്റോ എന്നാല് ശരിയാണെന്ന് അഭിപ്രായക്കാരനാണ് എന്നാല് നേട്ടങ്ങളുണ്ട് ചുല കോട്ടങ്ങളുമുണ്ട് ആ കോട്ടങ്ങള് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഈ കോട്ടങ്ങള് പോരായ്മകള് ഒക്കെ ഒഴിവാക്കി ഇത് മുന്നോട്ടു കൊണ്ടുപോകണം എന്ന ഒരഭിപ്രായം കൂടി ഞങ്ങള്ക്കുണ്ട്